നമ്മുടെ പ്രദേശത്ത് പരമ്പരാഗത കളികൾ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ കൂടുതലായിട്ടും ക്രിക്കറ്റ് ഫുട്ബോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നട നടക്കുന്നത് കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ പണ്ടുമുതലേ കളിക്കുന്ന കളികളാണ് ഈ രണ്ട് കളികളും അപ്പം അത് ഇപ്പോഴും എല്ലാരും കളിക്കുന്നുമുണ്ട് കളി കാണുന്നുമുണ്ട് അപ്പം നമ്മുടെ ഇവിടുന്ന് തന്നെ ഇന്ത്യയിൽ ഒരു വനിതയെ തിരഞ്ഞെടുത്തിട്ടുണ്ട് മിന്നുമണി എന്നാണ് അവളുടെ പേര് പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേറെ കളികൾ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഹോക്കി ഉണ്ട് നമ്മുടെ ഇന്ത്യയിലെ തന്നെ മെയിൻ ആയിട്ടുള്ള കായിക വിനോദം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹോക്കി ആണ് പക്ഷേ ഹോക്കി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആരും കാണലുമില്ല ഹോക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താണെന്ന് പോലും അറിയില്ല പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പണ്ടുകളിച്ച് വരുന്ന അക്കുകളി ഗോട്ടികളി ഗോട്ടികളി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പിള്ളേർക്ക് എന്താണെന്ന് പോലും അറിയില്ല ഗോട്ടി എന്ന് പറഞ്ഞ സാധനം ഇപ്പം അങ്ങനെ നമ്മുടെ കടകളിലൊന്നും കാണാനും കിട്ടാറില്ല ആദ്യം ഒക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗോട്ടി ഇഷ്ടംപോലെ കുപ്പികളിൽ ഇങ്ങനെ നിറഞ്ഞ് നിറച്ചിട്ടുണ്ടാവും അപ്പം അതെല്ലാ പിള്ളേരും വാങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായി പക്ഷേ ഇപ്പം ഗോട്ടി എന്താണെന്നും കൂടി അറിയില്ല സംഭവം നമ്മൾ ഗോട്ടി കളിക്കുന്നത് നമ്മൾ വേറൊരു ഗോട്ടിയിൽ കൊണ്ട് തട്ടിക്കുന്നതാണ് അതായത് വിരൽ വെച്ചിട്ട് അടിക്കുന്നതാണ് ഗോട്ടി എന്ന് പറഞ്ഞാൽ അതിപ്പം ആരും കളിക്കുന്നുമില്ല അതിപ്പം എന്താണെന്നും കൂടി ആർക്കും അറിയാത്ത ഒരു അവസ്ഥയാണ്